നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്കെന്തും എന്തൊരു ഭക്ഷണം ഉണ്ടാക്കണമെങ്കിലും അതിന് പല തരത്തിലുള്ള സാധന സാമഗ്രികൾ നമ്മള് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അതില് ഉദാഹരണം തേങ്ങാപാൽ പഞ്ചസാര മസാലകൾ തുടങ്ങിയവയൊക്കെ ഇതിനു ഉദാഹരണമാണ് ഇതുപോലെതന്നെ കൂടാതെ ഉപ്പ് മുളക് പൊടി അങ്ങനത്തെ പല മസാലകളും ഇതിലൂടെ ഉപയോഗിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ സ്വാദ് കൂട്ടുന്നു കൂടാതെ ഇല വർഗ്ഗങ്ങൾ പോലുള്ളവ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും പച്ചക്കറികൾ ധാരാളം ഉപയ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യത്തിനും നല്ലത് തന്നെ സംഭവിക്കുന്നു പിന്നെ നിരവധി ചേരുവകകൾ ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി തുടങ്ങിയവയൊക്കെ ഈ ചേരുവകകളിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെതന്നെ പച്ചക്കറികൾ പല തരത്തിൽ അരിഞ്ഞിടുമ്പോൾ അത് ചേരുവകളായി തന്നെ പരിഗണിക്കാൻ പറ്റുന്നതാണ്